മാലിന്യം കൈകാര്യം ചെയ്യുന്ന കാര്യത്തില് നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് പൊതുവായിട്ടുള്ള സ്ഥലങ്ങളിൽ മാലിന്യം നമ്മള് വെറുതെ കൊണ്ട് വലിച്ചെറിയുന്നുണ്ട് അത് അതങ്ങനെ ചെയ്യാതെ പിന്നെ കുറച്ചുംകൂടെ നമ്മള് അത് ന്നെ ഒരു വീട്ടില് ആണെങ്കിൽ തന്നെയും അത് നമ്മള് ഓരോന്ന് പ്രത്യേകം ഓരോ ഇതിൽ ഓരോ ഓരോ സംഭരിച്ചു വെച്ചിട്ട് അതിൻ്റേതായ രീതിയില് നമ്മള് ചെയ്യേണ്ടതാണ് പിന്നെ അതുപോലെ പൊതുസ്ഥലങ്ങളില് മാലിന്യം വലിച്ചെറിയുന്നത് നമ്മളൊഴിവാക്കണം അതിന് കുറച്ചും കൂടെ നമ്മള് ശ്രദ്ധ വെക്കേണ്ടതാണ് പിന്നെ വീടുകളിലാണെങ്കിലും നമ്മൾ വീട്ടിലുള്ളവര് കുറെക്കൂടെ ശ്രദ്ധ വെക്കുവായാണെങ്കില് നമ്മൾക്ക് വീട്ടിലും പൊതുസ്ഥലങ്ങളിലും അതിൻ്റേതായിട്ടുള്ള ഒരു നല്ല ഒരു വൃത്തിയും നല്ല ഒരു ചിട്ടയും ഒക്കെ വരുന്നതാണ് അതിന് നമ്മള് കുറച്ചും കൂടെ ശ്രദ്ധിക്കണം മാലിന്യം നമ്മൾ ഒരുപാട് പൊതുസ്ഥലങ്ങളില് നമ്മൾ റോഡിലും റോഡ് വക്കിലും എല്ലാം വലിച്ചെറിയുന്നുണ്ട് അതിനതിൻ്റേതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഓരോ സംഘടനകളും അല്ലെങ്കിൽ ഓരോ പഞ്ചായത്തിൻ്റേതായിട്ടാണെലും ഓരോരുത്തരും അതിൻ്റേതായിട്ടുള്ള കുറിച്ചും കൂടെ ഒന്ന് ശ്രദ്ധ ചെലുത്തുവാണെങ്കിൽ നമ്മളുടെ ഇതെല്ലാം നമുക്ക് മാറ്റി നല്ലൊരു ശുചിത്വം നമുക്ക് വരുത്താവുന്നതാണ് അതിന് നമ്മൾ ഓരോരുത്തരും നമ്മള് തന്നെ നമ്മുടെ വീട്ടിലാണെങ്കിലും പൊതുസ്ഥലങ്ങളിൽ ആണെലും നമ്മൾ പോകുന്ന സ്ഥലത്തെല്ലാം സ്ഥലത്താണെങ്കിലും നമ്മൾ ഓരോരുത്തരും അതിൻ്റേതായ രീതിയില് നമ്മൾ ഒന്ന് ഒരല്പം ശ്രദ്ധ വെക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്ഥലങ്ങള് നമ്മുടെ റോഡുകള് നമ്മുടെ സ്ഥാപനങ്ങള് ഏത് എവിടാണേലും നമ്മൾക്ക് അതിൻ്റെ അത് നല്ല ഒരു ഇതായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനു വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്ന രീതിയില് നമ്മൾ അതിൻ്റെ കുറച്ചും കൂടെ ഒന്ന് അവരെ ആകർഷിക്കാനും നമ്മുടെ ഓരോ സ്ഥലങ്ങളും നല്ല രീതിയിൽ ഒന്ന് കൊണ്ടുപോകുവാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം കിട്ടുന്നതാണ് അവ വിനോദസഞ്ചാരികള് നമ്മുടെ നമ്മുടെ സ്ഥലത്തോട്ട് നമ്മുടെ നാട്ടിലോട്ടൊക്കെ വരുമ്പോൾ അവർ അവർക്ക് നമ്മളെക്കൊണ്ട് കഴിയുന്ന സഹായം നമുക്ക് പറ്റുന്ന രീതിയില് അവർക്ക് ചെയ്തു കൊടുക്കാനും പിന്നെ അതിൻ്റെ അത് അത് വഴി അവരെക്കുറച്ചും കൂടെ നമക്ക് ഇങ്ങോട്ട് ആകർഷിക്കാനും നമുക്ക് സാധിക്കും ഉത്തരവാദിത്വം പഞ്ചായത്തിന് അവര് വരുമ്പം കുറച്ചൊക്കെ അവരുടെ ആ പഞ്ചായത്തിൻ്റെ പഞ്ചായത്തിൻ്റെയും പോലീസിൻ്റെയും അവരുടെ നേതൃത്വത്തിൽ അവിടെ അറിയിച്ചിട്ടൊക്കെ ഇങ്ങോട്ട് അവര് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം അവർക്ക് ഏറ്റെടുക്കാനും അതുവഴി നമുക്ക് കുറച്ചൊക്കെ ഇപ്പോൾ നടക്കുന്ന ഓരോരോ അപകടങ്ങൾ അപകടങ്ങളും അങ്ങനെയുള്ള ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും നമ്മുടെ നാട്ടിലോട്ട് വിനോദസഞ്ചാരികൾ വരുമ്പോൾ അവർക്ക് ദൂരെന്ന് വരുന്നതുകൊണ്ട് അവർക്ക് നമ്മുടെ ഈ നാട്ടിലെ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് അറിയാനായിട്ട് പറ്റുകയില്ല അപ്പോൾ നമ്മൾ ഇവിടെയുള്ള ആൾക്കാര് അതുപോലെ പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ ഭാരവാഹികള് അല്ലെങ്കിൽ പോലീസുകാര് അപ്പവരുടേതായിട്ടുള്ള അറിവിലും ഉത്തരവാദിത്വത്തിലും വരികയാണെങ്കില് നമുക്ക് കുറച്ചും കൂടെ അത് പൂർണ്ണമായ രീതിയില് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും അപ്പം അവർക്ക് ഒരുപാട് അപകടങ്ങൾ അവിടെ ഈ നാട്ടിലോട്ട് വരുമ്പോൾ ഇവിടെ നടക്കുന്ന അപകടങ്ങള് ഏറെക്കുറെ നമക്ക് നമ്മൾ അറിഞ്ഞ് ഇതിൻ്റെ രീതിയില് വരുമ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഒരു ഉത്തരവ നമ്മുടെ ഈ വരവാണെങ്കിൽ ഒരു ഉത്തരവാദിത്വം നമ്മള് കുറച്ചും കൂടെ ഏറ്റെടുക്കുവാണെങ്കിൽ കൂടുതലും അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും പിന്നെ അവർക്ക് കുറച്ചും കൂടെ നമ്മളിൽ നിന്നൊരു സേവനം കിട്ടുവാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ അതിൻ്റേതായിട്ടുള്ള ഒരു ഒരു ഉത്സാഹവും വീണ്ടും വരാനുള്ള ഒരിതും എല്ലാം ഒരുള്ള ഒരു പ്രേരണയും അവർക്കുണ്ടാകും അവരുവായിട്ട് നമ്മള് കുറച്ചും കൂടെ ഇടപഴകി നല്ലതായിട്ട് അവര് അവിടുന്ന് വരുന്നവരിൽ നിന്നും കുറച്ചൊക്കെ നമുക്ക് കുറച്ച് അറിവും കിട്ടും നമ്മുടെ ഇവിടെ നിന്നുള്ള കാര്യങ്ങള് അവരെ പറഞ്ഞു മനസ്സിലാക്കാനും പിന്നെ എല്ലാ രീതിയിലും നമുക്കത് സാധിക്കും അതുകൊണ്ട് കുറച്ച് കുറച്ചുംകൂടെ നമ്മള് ശ്രദ്ധിക്കണം പിന്നെ ഈ മാലിന്യം പൊത് നിരത്തിലിടുന്നതിനോടും പിന്നെ ദൂരെ ഇങ്ങനെ പൊതു സ്ഥലങ്ങളിൽ വലിച്ചെറിയുന്നെനും കുറച്ചും കൂടെ നമ്മള് ജാഗ്രത കാണിക്കേണ്ടതാണ്